ആദ്യമായിട്ട് വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ്ന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച പ്രൊഡക്ട് ടേബിൾ ലാംബായിരുന്നു ഫ്ലിപ്കാർട്ട് വഴി അന്നെൻ്റെ പഴയ ടേബിൾ ലാംബ് കേടായിപ്പോയി എനിക്ക് പഠിക്കാനായിട്ട് ടേബിൾ ലാംബ് ഭയങ്കര അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്നത് കൂടുതൽ സമയവും രാത്രിയാണ് ഉറങ്ങുന്ന ആ ഒരു രണ്ടു മണിവരെയൊക്കെ ഇരുന്ന് പഠിക്കും ഞാൻ കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതൊന്നു മാനേജ് ചെയ്യാനായിട്ട് രാത്രി കൂടുതൽ നേരം ഇരുന്ന് പഠിക്കും അപ്പോൾ ഈ രണ്ടു മണി സമയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പാരൻസൊക്കെ ഉറങ്ങുന്ന ടൈമാണ് അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആക്കണ്ടാന്ന് കരുതിയിട്ട് ഒരു ടേബിൾ ലാമ്പ് മാത്രം ആ സമയത്ത് യൂസ് ചെയ്യും അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര അത്യാവശ്യം അത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഫ്ലിപ്കാർട്ട് വഴി ഒരു ടേബിൾ ലാമ്പ് ഓർഡർ ചെയ്തു അത് എണ്ണൂറ് രൂപയായിരുന്നു ഒരു ഓഫറ്ണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് ലഭിച്ചു ഞാൻ അങ്ങനെ വാങ്ങിച്ചു അത് അവർ പറഞ്ഞ അതേ സമയത്ത് തന്നെ കൊണ്ടു വന്നു എത്തിച്ചു ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ഒപ്ഷനായിരുന്നു കൊടുത്തിരുന്നത് പിന്നെ പാക്കിംഗ് ഒക്കെ വളരെ നന്നായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ആ ടേബിളിലാംബിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് എങ്ങോട്ട് വേണോ അതിനെ മൂവ് ചെയ്യാം അതുപോലെതന്നെ നമുക്ക് ഓണ് ഓഫാക് ഓഫ് ഒക്കെ ആക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അതുപോലെത ന്നെ എത്ര ലൈറ്റ് വേണം അതിനനുസരിച്ച് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ ഒരു ബാറ്ററി ലൈഫെന്ന് പറയുന്നത് ഇപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്തന്നെ അത്യാവശ്യം സ്പീഡില് ചാർജ് കയറും അതുപോലെതന്നെ ചാർജ് അത് ആവശ്യത്തിന് നിൽക്കുകയും ചെയ്യും ഇപ്പോൾ കരണ്ട്ക്കെ പോയൽ സമയത്തും വണ്ണവറൊക്കെ ചാർജ് നിന്നിട്ടുണ്ട് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ വണ്ണവറൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ടേബിള ലാംബാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്